ആ ഹലോ ആരാണ് വിളിക്കുന്നത് ആ എന്താണ് രമ്യാ ആ ആ ഈ കംപ്ലെയിന്റ് എനിക്കിവിടെ നേരത്തെ തന്നെ കിട്ടിയിരുന്നു രമ്യ ഒരാഴ്ച്ച കൊണ്ട് ഐഡൻ്റി കാർഡ് ഇടാതെയാണ് ക്ലാസിന് വരുന്നതെന്ന് ഞാനറിഞ്ഞു എന്തുകൊണ്ട് രമ്യ ഇത് ഐഡൻ്റി കാർഡ് യൂസ് ചെയ്യുന്നില്ല രമ്യയുടെ ഉത്തരവാദിത്വമില്ലായ്മയല്ലെ നമുക്കതിലൂടെ തെളിയിക്കുന്നത് കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ എൽ കെ ജിയിൽ പഠിക്കുന്ന കുഞ്ഞുകൊച്ചാണോ ഇത് കളഞ്ഞിട്ടിങ്ങനെ നടക്കാൻ കൊച്ചുകുട്ടികൾ വരെ ഐഡന്റിറ്റി കാർഡിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കി അത് സൂക്ഷിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ മാത്രം എന്താണിങ്ങനെ നോക്കുന്നത് സോറി പറഞ്ഞിട്ട് സാധനം തിരിച്ചുകിട്ടുമോ ഏ ഐ ഡി കാർഡില്ലാതെ കോളേജ് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറാൻ പോലും പറ്റത്തില്ല ഇല്ല ഇല്ല അങ്ങനെയിപ്പോൾ ഒരാൾക്ക് ഒരെണ്ണം കളഞ്ഞ് പോയെന്നും പറഞ്ഞുംകൊണ്ട് നെക്സ്റ്റ് ഉടനെ ഒരെണ്ണമുണ്ടാക്കിക്കൊടുക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് ഓരോന്ന് കളഞ്ഞിട്ട് വരാൻ തുടങ്ങും അപ്പോൾപ്പിന്നെ വീണ്ടും വീണ്ടും ഞങ്ങളുണ്ടാക്കേണ്ട അവസ്ഥയല്ലെ വരുന്നത് നിങ്ങളെത്ര വയസ്സുള്ള ഒരു കുട്ടിയാണ് ആ ആ ആ രമ്യാ രമ്യയുടെ പാരെന്റ്സ് എന്ത് ചെയ്യുകയാണ്

ആ അപ്പം പേരന്റ്സ് ഇവിടെ വരികയും ലെറ്ററെഴുതി എൻ്റെ കയ്യിൽ തരികയും ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ പുതിയ ഐ ഡി കാർഡ് അലൌഡാക്കുകയുള്ളൂ ഓക്കേ അല്ലാതെ ഞാനിത് വിശ്വസിക്കത്തില്ല നിങ്ങളിത് കളഞ്ഞിട്ട് എന്താണ് ചെയ്തതെന്ന് ഞങ്ങൾക്കുറപ്പില്ലല്ലോ ഇത് ആ എത്ര ദിവസമായി ഇത് കയ്യിൽ നിന്ന് പോയിട്ട് എന്തുകൊണ്ടിത്രയും ദിവസം മിണ്ടിയില്ല ഓക്കേ അപ്പം ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ പേരന്റ്സിനെയും കൊണ്ടുവരിക എന്നെ വന്നുകണ്ട് ലെറ്റർ എഴുതിത്തരിക എന്നെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ ഓക്കെ ആ ഓക്കെ ശരി ആ ഉണ്ടാകും ഉണ്ടാകും മ് ഓക്കെ ശരി മ് ഓക്കെ ഓക്കെ ഓക്കെ വിളിക്കാം